ഞങ്ങളുടെ പ്രദേശം എന്നു പറയുമ്പോൾ കൂടുതൽ ഹിന്ദുക്കളുള്ള പ്രദേശമൊക്കെയാണ് അപ്പം ഹിന്ദുക്കളുള്ള പ്രദേശമെന്നൊക്കെ പറയുമ്പം ഏറ്റവും കൂടുതൽ ഓണം വിഷു ദീപാവലി അങ്ങനെ ഒക്കെയുള്ള ഉള്ള ആ ഉത്സവങ്ങളൊക്കെയാണ് ഉള്ളത് നമ്മുടെ ദേശീയ ഉത്സവങ്ങളിവിടെ ആ ആഘോഷിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലുള്ള ഉത്സവങ്ങൾ അമ്പലങ്ങളിലെ ഉത്സവങ്ങൾ അങ്ങനെ നമുക്ക് ചെറിയ ചെറിയ ഉത്സവങ്ങളാഘോഷങ്ങൾ അങ്ങനെയൊക്കിവിടെ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ഒരു ഉദാഹരണം എടുക്കുകയാണ് മതപരമായ മതപരമായ ഒരു ആ ആ ആഘോഷമെടുക്കുകയാണ് ദീപാവൽ ദീ ദീപാവലിയെന്നു പറയുമ്പം ദീ ദീ ദീപങ്ങളുടെ ഉത്സവമാണ് അതായത് നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ വിളക്കും ഓരോ കാര്യങ്ങൾ കത്തിച്ച് വെച്ചും ചിരാത് അങ്ങനെ കത്തിച്ച് വെച്ച് നമുക്ക് നമ്മളത് ആഘോഷിക്കും കുറേ ചിരാതും ചിരാത് ചട്ടിയൊക്കെ കത്തിച്ച് വെച്ച് നമ്മളാ ഒരു ന്പേ ആഘോഷിക്കും അപ്പം നമുക്കെന്താ കിട്ടണെ ഇപ്പോൾ കൂടുതൽ നമുക്ക് നമ്മൾ നമുക്കൊക്കെ ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാചീന കാലം തൊട്ടുള്ള ആഘോഷങ്ങളാണ് ഇതൊക്കെ ഒരു സന്തോഷത്തിൻ്റെയും ഒരു ആഘോഷത്തിൻ്റെ ഒത്തൊരുമയുടെ ഒക്കെ ഭാഗമാണ് ദീപാവലി ഓണം എന്ന് പറയുമ്പോൾ ഓണം എല്ലാ ആ മതമെന്യേ എല്ലാ എല്ലാ ആൾക്കാരും ക്രിസ്ത്യാ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിംസെല്ലാവരും ആ ആഘോഷിക്കുന്ന ഒരുത്സവമാണ് ഓണ ഒ ഒ ഓ ഓണത്തിന് നമ്മൾ പൂക്കളമിടും അങ്ങനെ നമ്മൾ ഓണക്കോടിയുടുക്കും ഓണവിരുന്ന് ഓണ സദ്യ അങ്ങനെ പല പല കാര്യങ്ങളുള്ളത് ജെ ആ ആ പല കാര്യങ്ങളുണ്ട് എല്ലാം ഇതൊക്കെ ഒരു ഓണം എന്നൊക്കെ പറയുമ്പം എല്ലാവരുടെ അത് ഒരു ദേശീയ ഉത്സവം തന്നെയാണ് ഓണം പിന്നെ നമ്മളത് വിഷു ആ വിഷുവിനാണ് വിഷുക്കണി വെയ്ക്കും വിഷു വിഷു എന്നൊക്കെ കൂടുതലും ഹിന്ദുക്കളാണ് ഹിന്ദുമത ഹിന്ദുമതത്തിലുള്ളവരാണ് ഈ വിഷു ആഘോഷിക്കുന്നത് വിഷുവിന് വിഷുക്കണി വെയ്ക്കും വിഷുക്കണിയിൽ നമ്മൾ കൊന്ന കൊന്ന അങ്ങനെ പല പല ആ ഭക്ഷ്യവസ്തുക്കൾ അതായത് വേ പഴവർഗ്ഗങ്ങളും പഴങ്ങൾ പഴവർഗ്ഗങ്ങളും പല ടൈപ്പുള്ള സാധനങ്ങളൊക്കെ കണിവെക്കുന്നതാണ് പിന്നെയുള്ളത് ഇത് പിന്നെയുള്ളത് നമ്മൾ ക്രിസ്ത്യൻ മതം എടക്കുകയാണേ ക്രിസ്ത്യൻ മതമാണ് ക്രിസ്തുമസ് അതാണ് ദേശീയ ലോകമെമ്പാടുമെല്ലാം ലോകത്തിൻ്റെ എല്ലാ കോണിലുള്ളവരാഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് എന്നു പറയുമ്പം യേ യേശുദേവൻ്റെ പിറന്നാളാണ് ക്രിസ്തുമസ് ക്രിസ്തുമസ് നമ്മൾ ആ ആ ആചരിക്കുന്നത് ഡിസംബർ ഡിസംബർ ഇ ഇ ഇരുപത്തി അഞ്ചിനാണ് ലോ ലോകമെമ്പാടും ഓ ലോകമെമ്പാടും ഉണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്തുമസാഘോഷിക്കുന്നത് ക്രിസ്ത്യൻസാണ് എന്നാലും എല്ലാ ഒട്ടു മിക്ക ആൾക്കാരും കേക്കൊക്കെ മുറിച്ച് നക്ഷത്രമൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കിയാണാഘോഷിക്കാറ് വൾ വളരെ വലിയൊരു ഉത്സവമാണ് വളരെ വെ വലിയൊരു ആഘോഷമാണ് ക്രിസ്തുമസ് ആ പിന്നെയുള്ളതാണ് ഈസ്റ്റർ ഈ ഈസ്റ്റർ ഇതേ പോലെ തന്നെ ക്രിസ്ത്യൻസ് പരം ക്രിസ്ത്യൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുത്സവമാണ് ഈസ്റ്റർ അപ്പോൾ ആ ഇ ഈ ഈ ഈസ്റ്റർ ഈസ്റ്റർ അപ്പോൾ അത് ആ അങ്ങനെയൊക്കെയുണ്ട് പിന്നെ മുസ്ലിം പരമായി ബന്ധപ്പെട്ടാണ് ഈദ് ഉൽ ഫിത്തർ ആ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ മുസ്ലിം പരബന്ധമായി പിന്നെ നബിദിനം നബി ദിനത്തിൽ ഒട്ടുമിക്ക ഈ സാധനങ്ങൾക്കൊക്കെ പൊതു ആ പൊതു അവധിയാണ് ആ അതു കൊണ്ട് തന്നെ പിള്ളേർക്കൊന്നും അങ്ങനെ സ്കൂളിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ല ചുമ്മാ വീട്ടിലിരിക്കാവുന്നതാണ് അപ്പം നമ്മൾ ഈ ആ ആഘോഷങ്ങളൊക്ക മനുഷ്യൻ്റെ ഒരു ഒത്തൊരുമയും ഒത്തു ചേരലും ആഘോഷങ്ങൾ എല്ലാറ്റിൻ്റെ ഒരു എല്ലാറ്റിൻ്റെ പ്രതീകമാണ് ഈ ഈ ഓരോരോ ആഘോഷങ്ങൾ പിന്നത് മതപരമായി അതിനെ തരം തിരിക്കുമ്പോൾ അത് എല്ലാവരും കൂടിച്ചേരുന്നത് കൊണ്ട് അത് അല്ലാണ്ട് തന്നെ പല പല രീ പല രീതിയിലുണ്ട് പിന്നെ ഓരോ ആഘോഷങ്ങളാണ് നമ്മുടെ ഉത്സവം ഉത്സവമേയില്ലേ ഉത്സവം ഉത്സവങ്ങളൊക്കെയാണ് പല അമ്പലത്തിൽ ഉത്സവം പള്ളി പെരുന്നാളുകൾ മുസ്ലീം പള്ളിയിലുള്ള ഓരോരോ ഓരോ പരിപാടികളങ്ങനെ പല ടൈപ്പുള്ള പരിപാടികളൊക്കെ ഈ ഇതിലുണ്ടോ ഉള്ളതാണ് മുസ്ലീം പള്ളിയിൽ നമുക്ക് നടത്താണ് പിന്നെ ഉത്സവം ഏറ്റവും കേമമായിട്ടുള്ള സംഭവമാണ് ഉത്സവം ഉത്സവങ്ങളെന്നും നമ്മുടെ അന്ന് ആ നമ്മുടെ രക്തത്തിൽ ആ രക്തത്തിലലിഞ്ഞതാണെങ്കിൽ നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഉത്സവം എന്നൊക്കെ പറയുമ്പം എപ്പോഴും നമ്മൾ ആഘോഷങ്ങൾക്ക് ആർമാദമാക്കി നടത്തുന്ന ഒരാൾക്കാരാണ് നമ്മുടെ കേരളീയർ അതേ പോലെ തന്നെയാണ് ലോകമെമ്പാടും ഒത്തൊരുമിച്ച് ഓരോ പല പലതരത്തിലുള്ള ആ ആഘോഷങ്ങളൊക്കെ ആ ആ ആചരിക്കുമ്പോൾ ഇത് നമ്മുടെ ഒ ഒ ഒത്തൊരുമയുടെ സന്തോഷത്തിൻ്റേയും പ്രതീകമാകുന്നു